ഹലോ മലബാർ റെസ്റ്ററൻ്റല്ലേ ഞാന് കോവാടിൽ നിന്നും നവ്യനിവാസിൽ നിന്ന് ജ്യോത്സനയാണ് സംസാരിക്കുന്നത് കുറച്ച് മുമ്പേ ഞാൻ നിങ്ങളുടെ റെസ്റ്ററന്റിൽ നിന്നും ഞാന് ഓർഡർ പറഞ്ഞിരുന്നു രണ്ട് ചിക്കൻ ബിരിയാണിയുടെ ഓർഡർ പറഞ്ഞിരുന്നു അത് കുറച്ച് മുമ്പ് ഡെലിവറി ആയി പക്ഷെ അതുപറയണത് ഡെലിവറി തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഓർഡർ ചെയ്തത് രണ്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു പക്ഷെ എനിക്ക് ഒരു ചിക്കൻ ബിരിയാണിയും ഒരു ചിക്കൻ ന്യൂഡിൽസാണ് ലഭിച്ചിട്ട് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അത് അത് ഇപ്പോൾ ഇനി ഞങ്ങക്കിപ്പോൾ അത്യാവശ്യം ഉണ്ട് ഒരു ചിക്കൻ ബിരിയാണിം കൂടിയപ്പോൾ അതിൻ്റെ ആയിട്ട് സഡൻ ആയിട്ടുള്ളൊരു ആക്ഷൻ ഒന്ന് എടുക്കണം ഗസ്റ്റൊക്കെ വന്നിരിക്കുവാണ് ഓൾമോസ്റ്റ് കുറെ ആയി അവര് വെയിറ്റ് ചെയ്യണു അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് പോണമെന്നാണ് പറയണത് സോ ഒന്ന് പെട്ടന്ന് എന്തേലും ചെയ്യാൻ പറ്റുവെങ്കിൽ ഒന്ന് ചെയ്യൂ നവ്യാ നിവാസിൽ ജോത്സനയാണ് ഓക്കെ ഓർഡർ നമ്പർ ഫിഫ്റ്റി എയിറ്റ്